സ്പോർട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരാളാണ് ഞാൻ ചെറുപ്പം മുതലേ സ്പോർട്സ് സ്പോർട്സിലൊക്കെ പങ്കെടുത്ത് പ്രൈസസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൽ കെ ജി തൊട്ടിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ പങ്കെടുത്ത എനിക്ക് പ്രൈസ് കിട്ടിയ ഒരു ഐറ്റം എന്ന് പറയണത് ഒരു ക്രിക്കറ്റ് ബോൾ ത്രോ ആയിരുന്നു അപ്പോൾപ്പിന്നെ അതിന് ശേഷം അത് എൽ കെ ജിയിലാണ് എനിക്ക് ആ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നെ പിന്നെ അതിനുശേഷം ഞാനൊരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെയൊക്കെ എന്റൊരു മെയിനായിട്ട് സ്പോർട്സിലെ ഐറ്റം എന്ന് പറയണത് ഓട്ടമായിരുന്നു എനിക്ക് എല്ലാ കൊല്ലവും പങ്കെടുക്കുമ്പൊഴൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്ക് പ്രൈസസൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങന ഓട്ടത്തില് പങ്കെടുക്കാറുണ്ടായിരുന്നില്ല റിലേ പോലുള്ള ഐറ്റംസില് ഞാൻ പങ്കെടുത്തിരുന്നു പക്ഷെ അങ്ങന ഹൺഡ്രഡ് മീറ്റർ ടു ഹൺഡ്രഡ് മീറ്റർ അങ്ങനെ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ സ്പോർട്സ് ഐറ്റം എന്ന് പറയുന്നത് ഡിസ്കസ് ത്രോ ജാവലിൻ അതേമാതിരി ഷോട്ട് പുട്ടൊക്കെയായിരുന്നു പക്ഷെ പൂർണ്ണമായിട്ട് ഞാൻ ഓട്ടത്തിന് ഓട്ടം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോൾ രാവിലെ സമയം കിട്ടുമ്പോഴൊക്കെ ഓടാൻ പോവാറുണ്ടായിരുന്നു അപ്പോൾ നമ്മക്കപ്പോൾ ഒരു എന്താ പൂർണ്ണമായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഓട്ടത്തെ മാറ്റി നിർത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കും ചില സമയത്തൊക്കെ ഞാൻ വെയ്റ്റ് ഈ ഓടാൻ പറ്റാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് അസുഖം വന്നിരുന്ന സമയത്തൊക്കെ എനിക്ക് കുറേ ആയിട്ട് ഞാൻ ഓടിയിരുന്നില്ല അതേപോലെത്തന്നെ വെയ്റ്റൊക്കെ കൂടിയിരുന്നു അപ്പോൾ വെയ്റ്റ് കുറയ്ക്കാനായിട്ടും ഞാൻ ഓടിയിരുന്നു അങ്ങനെ എൻ്റെ വെയ്റ്റ് കുറയ്ക്കാനും ഓട്ടം സഹായിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കാൻ അല്ലെങ്കിൽ ഫിറ്റായിരിക്കാനൊക്കെയാണ് എൻ്റെ ബോഡി ഹെൽത്തി ആയിരിക്കാനും ഫിറ്റായിരിക്കാനോക്കെ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഓടാൻ ഓടണത് നമ്മളുകൂടി ഹെൽത്തി ആയിരിക്കാനും ഫിറ്റായിരിക്കാനും ഓട്ടം വളരെ നന്നായിട്ട് സഹായിക്കും പിന്നെ അതേമാതിരിത്തന്നെ വയറ് വയറ് ചാടുക അല്ലെങ്കിൽ മസില് വെക്കാനും ഒരു ബലം മസിലുകളൊക്കെ ദേഹത്തു മസിലുകളൊക്കെ ബലം വെക്കാനൊക്കെ ഓട്ടം നന്നായിട്ട് സഹായിക്കും